ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറേ അറ്റത്തുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അറബിക്കടലിനും സഹ്യ പർവ്വതത്തിനും ഇടയിലായി കിടക്കുന്ന ഈ ഭൂപ്രദേശത്തിനു ഏകദേശം മുപ്പത്തെട്ടായിരത്തി എണ്ണുറ്ററുപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് മലയാളം മാതൃഭാഷയാണ് നമ്മുടെ ഈ കേരളത്തിന് സാംസ്കാരിക മേഖലയിലെ നാല് സംസ്ഥാനങ്ങളിൽ ഒന്നാണ്

തമിഴ്നാടും കർണ്ണാടകവുമാണ് കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ പിന്നീട് കേരളത്തോട് പിന്നീട് പറയുന്നത് എന്താന്നു വെച്ചിട്ടുണ്ടെങ്കില് ഭാഷാപരമായും സാംസ്കാരിക പരമായും കേരളത്തോട് അഭേദ്യമായ ബന്ധം പുലർത്തുന്നത് ലക്ഷദ്വീപ് ഒന്നാണ് കൊച്ചി തിരുവിതാംകൂർ എന്നീ നാട്ടു രാജ്യങ്ങൾ ചേർത്ത് തിരുകൊച്ചി സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്